വയനാട് ജില്ലയിലെ സൂചിപ്പാറ വാട്ടർഫാൾസ് കാണുന്നതിനായി ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരിക്കൽ യാത്ര ചെയ്യുകയുണ്ടായി യാത്രാമധ്യേ കാടിനു നടുവിൽ നിന്നായി കാതു തുളച്ചുകയറുന്ന ശബ്ദത്തിൽ ഒരു പക്ഷിയുടെ അലര്ച്ചയുണ്ടായി അലർച്ചയുടെ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ഉറവിടം എവിടെ എന്നു കണ്ടെത്തുന്നതിനായി എല്ലാവരിലും ആകാംക്ഷയുണർന്നു കാടിനു നടുവിൽ നിന്നുള്ള ശബ്ദമായതിനാലും അപകട സാധ്യത മനസ്സിലാക്കിയതിനാലും വളരെയധികം കാടിനകത്തേക്കു ഞങ്ങൾ പ്രവേശിച്ചില്ല എന്തിരുന്നാലും കുറച്ചു ദൂരം കാടിനകത്തോട്ടു പോയി അടുക്കുന്തോറും ശബ്ദത്തിൻ്റെ തീവ്രത കൂടി വന്നിരുന്നു അങ്ങനെ നടന്നു നടന്നു ഞങ്ങൾ വലിയൊരു മരച്ചുവട്ടിലെത്തി അപ്പോഴാണ് ഈ മരത്തിനു മുകളിൽ നിന്നാണു ശബ്ദത്തിൻ്റെ ഉറവിടം എന്ന കാര്യം മനസ്സിലായത് ഞങ്ങൾ നോക്കി മരത്തിൻ്റെ മുകളിൽ പല ഭാഗങ്ങളിലായി ഉണങ്ങി നിൽക്കുന്ന കൊമ്പുകളുണ്ടായിരുന്നു ശരിക്കുമാ ശബ്ദം ആ ഒരു കാടിനെത്തന്നെ കുലുക്കുന്ന തരത്തിലുണ്ടായി കുലുക്കുന്ന തരത്തിലുള്ളൊരു ശബ്ദമായിരുന്നു പെട്ടെന്നു തന്നെ ഒരു പക്ഷി പാറിപ്പോകുന്നതു കണ്ടു നീണ്ട കൊക്കുള്ളതും വളഞ്ഞ പിൻചിറകുള്ളതുമായ ഒരു പക്ഷി പേരെന്താണെന്നും ഏതു വിഭാഗത്തിൽപ്പെട്ട പക്ഷയാാണന്നും അറിഞ്ഞിരുന്നില്ല അറിയാൻ സാധിച്ചില്ല തുടർന്ന് ആ വീണ്ടും വാട്ടർഫാൾസ് ലക്ഷ്യമാക്കി ഞങ്ങള് നടക്കുകയും അവിടെ എത്തിയ ശേഷം വാട്ടർഫാൾസിനു സമീപത്തു നിന്നിരുന്ന ഫോറസ്റ്റ് ഗാർഡിനോടു വിവരം പറഞ്ഞ് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ വേഴാമ്പൽ വിഭാഗത്തിൽപ്പെട്ട ഒരു തരം പക്ഷിയാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞത്